ഞാൻ സാധാരണ പെട്ടെന്ന് എളുപ്പത്തിൽ പാചകം ചെയ്യാറ് ആ ഗീ റൈസാണ് പെട്ടെന്ന് ഉണ്ടാകാറ് അതായത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടവുമാണ് അതുപോലെ തന്നെ ആ ചോറൊക്കെ വൈകുന്നേരം ബാക്കി ഇരുപ്പില്ലേൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാറുള്ളത് ഗീ റൈസാണ് അപ്പം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ ഒരു വിഭവമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയും സ്പൈസസും ഒരു ഒരു ഒനിയനും കുറച്ച് മല്ലി താഴിയും റൈസും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പിൽ വെയ്ക്കും അതായത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അത് ചൂടായതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ സൺ ഫ്ലവർ ഓയിലാണ് ചേർക്കാറ് അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ആ ഓയിൽ കുറച്ച് ചൂടായി വന്നതിന് ശേഷം ഓൾ സ്പൈസസ് ഇടും അതായത് പട്ട ഗ്രാമ്പൂ ഏലക്കായ് ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു വലിയ ഒരു ഉള്ളി അതായത് സവാള ചെറുതായിട്ട് നൈസിൽ അരിഞ്ഞ് അരിഞ്ഞത് ഇടും നന്നായി അത് വഴന്ന് വഴന്ന് വരുന്ന രീതിയിൽ നമ്മൾ നന്നായി കുറേ നേരം ഇളക്കി കൊടുക്കണം അപ്പം ഈ വഴന്ന് വരുന്നതിലൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് വരും അപ്പോൾ ഉപ്പ് ചേർത്ത് നല്ല വഴന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ പിന്നെ പേസ്റ്റ് ഒക്കെ ആ മാർക്കറ്റിൽ ഒക്കെ അവൈലബിൾ ആയത് കൊണ്ടുതന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് അത് നന്നായി ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ അത് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റി എടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് പച്ചമുളക് അങ്ങനേ ഇടണം അതായത് നമ്മൾ പ്രതേകിച്ച് അതിന് കീറി ഒന്നും ചെയ്യാതെ പച്ചമുളക് ഒക്കെ അങ്ങനേ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നു കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് അരിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് രണ്ട് ഗ്ലാസ് അരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ആദ്യം അരി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അരി ഒന്ന് വയക്കണം വഴന്ന് വരണം കാരണം അരിയിൽ എണ്ണ പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അരി ഒട്ടിപിടിക്കില്ല അതുകൊണ്ടാണ് അരി മാത്രമൊന്നിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് ഒരു ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് മല്ലി താളി മേലെ വിതറി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുക്കർ അടച്ച് കഴിഞ്ഞ് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യുക ഒരു വിസിൽ ഒരു വിസിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് കഴിക്കാവുന്നതാണ്